ആ ഇത് കോഴിക്കോട് ഉള്ള റെൻ്റൽ കമ്പനി ആയിരുന്നു ആര് ആയിരുന്നു

റെൻറ്റിൻ്റ ആവശ്യത്തിനാണോ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് ബൈക്ക് ആണ് വേണ്ടത് അല്ലേ എത്ര പേര് ഉണ്ട്

നാല് പേര് അല്ലെ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് നാല് പേർക്കും ഒരേ പോലത്തെ വണ്ടി ആണോ വേണ്ടത് അതോ വേറെ വേറെ ടൈപ്പ് വണ്ടി ആണോ വേണ്ടത് ഒരേ പോലത്തെ വണ്ടീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വരുന്നത് പൾസർ ഉണ്ട് പിന്നെ പൾസറിൽ ഇപ്പം നാല് വണ്ടി നമ്മൾക്ക് നാല് അല്ല ഒരു അഞ്ചോ ആറോ വണ്ടി നമ്മൾക്ക് അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി ഉണ്ട് ടു ട്വൻ്റി ഉണ്ട് വേറെ ഉള്ളതെന്നു പറഞ്ഞ് കയിഞ്ഞാൽ ഹിമാലയൻ ഉണ്ട് ഡോമിനോർ ഉണ്ട് ഡ്യൂക്ക് ഉണ്ട് പിന്നെ സ്കൂട്ടീൻ്റെ ആക്സസ് ഡിയോ അങ്ങനത്ത വണ്ടികൾ എല്ലാം ഉണ്ട് ആ അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വച്ച് കയിഞ്ഞാൽ പറഞ്ഞാൽ മതി നമ്മളത് അപ്പോഴത്തേക്ക് റെഡി ആക്കിത്തരാം കുഴപ്പമൊന്നും ഇല്ല റെൻ്റ് എന്നു പറഞ്ഞ് കയിഞ്ഞാൽ സ്കൂട്ടിക്ക് നമ്മൾക്ക് അഞ്ഞൂറ് രൂപ ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു ദിവസത്തേക്ക് ആ ഒരു ദിവസത്തേക്ക് നമ്മൾക്ക് കിലോമീറ്ററിൻ്റ അനുസരിച്ച് ഒന്നും അല്ല ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ ആണ് വരുന്നത് ആ നിങ്ങൾക്ക് ഇപ്പം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ കുഴപ്പം ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം സ്റ്റേറ്റ് ആ എല്ലാ കാര്യം പറ്റും സ്റ്റേറ്റ് വിട്ട് അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ അങ്ങനത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം പ്രൂഫ് എന്നു പറഞ്ഞ് കയിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് മാത്രം ഇവിടെ തന്നാൽമതി ഒറിജിനൽ ആധാർ കാർഡ് ഒന്നു തരിക നമ്മളതിൻ്റ കോപ്പി എടുത്ത് ഇവിടെ വയ്ക്കും വേറെ ഒന്നും ഇല്ല ആധാർ കാർഡിൻ്റ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കോപ്പി കൊണ്ടുത്തന്നാലും മതി കേട്ടോ ആ മതി അതു മാത്രം മതി വേറേ ഇപ്പം നിങ്ങളിപ്പം ഒരു മാസത്തേക്ക് ആണ് പോകുന്നതെങ്കിൽ അഡ്വാൻസ് പേയ്മെൻ്റ് ഒരു ഫൈവ് തൗസൻ്റ് റുപ്പീസ് നിങ്ങൾ തന്നാൽമതി ഒരു മാസത്തേക്ക് ഒക്കെ ഇപ്പം കൂടുതലായിട്ട് പോകുന്നവർ കേട്ടോ ആ നിങ്ങൾ ഇപ്പം ഒന്നോ രണ്ടോ മാസത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം തന്നാൽമതി ഇല്ലെങ്കിൽ ഇപ്പം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആണെങ്കിൽ ഒന്നും വേണ്ട അഡ്വാൻസും കാര്യങ്ങളും ഒന്നും തരണ്ട ആ അതു നിങ്ങൾ വൺ വീക്ക് ആണോ അപ്പം അതിന് അഡ്വാൻസും കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം വണ്ടിയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്ക പറ്റി കയിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആണ് ഫുൾ തന്നു വിടുക നിങ്ങൾക്ക് വണ്ടിയ്ക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ആദ്യം നമ്മൾ നോക്കും ചെക്ക് ചെയ്യും അതു കഴിഞ്ഞിട്ട് വണ്ടിയ്ക്ക് നിങ്ങളിപ്പം എന്തെങ്കിലും ആക്സിഡൻ്റോ ഇപ്പം വണ്ടിയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം എഞ്ചിൻ പരമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പം ഇല്ല നിങ്ങൾ മറിച്ച് മറിച്ച് ഇടുകയോ അങ്ങനത്തെ പരിപാടി ഒക്കെ ഇല്ലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി തട്ടുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻ്റും കൂടി എടുക്കും ഞങ്ങൾ കേട്ടോ അതും കൂടി ആഡ് ആവും ഇതിനകത്തേയ്ക്ക് ആ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കയിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് എല്ലായിടത്തും കറങ്ങാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വണ്ടി റെഡി ആക്കിത്തരാം സാർ വന്നാൽമതി സാർ വന്നിട്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് കയിഞ്ഞാൽ ഞമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിത്തരാം ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓ ഓക്കെ ഓക്കെ ഓക്കെ സാർ ആ എന്നാൽ വിളിച്ചാൽ മതി ഉം